ഞാൻ സേതുലക്ഷ്മി ആയിരുന്നെ ചെന്നൈയിൽ നിന്ന് ആയിരുന്നു വിളിച്ചത് അപ്പോൾ ഞങ്ങൾ നല്ല സീ ഫുഡ് ഒക്കെ കിട്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചതായിരുന്നു ആ അപ്പം കറെക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറയാമോ ആ ആണോ അപ്പോൾ റേറ്റ് ഒക്കെ എങ്ങനെയാണ് അഫോർഡബൾ ആയിരിക്കുമോ അതോ അല്ല കുറെ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഭയങ്കര റേറ്റ് ആണ് പിന്നെ നമ്മൾ റിവ്യു നോക്കുമ്പോൾ ആണെങ്കിലും എന്താ വലിയ റിവ്യു ഒന്നും എന്താ അത്രയ്ക്ക് ഇല്ല അപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷനേ അതുകൊണ്ട് അങ്ങ് വിളിച്ചതായിരുന്നു ആണോ അപ്പം ടൈമോ ടൈം എത്ര മണി എത്രവരെ കാണുമായിരിക്കും അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയോ ആ ഓക്കേ അപ്പോൾ അടുത്ത് അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലങ്ങൾ ഒക്കെ ഉണ്ടോ വേറെ ആണോ ആ ഓക്കേ താങ്ക്യൂ കേട്ടോ അ ആ